സംസ്ഥാനത്തിൻ്റെ ഗതാഗത ഗുണനിലവാരം പല സ്ഥലങ്ങളിലും വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ നമ്മുടെ റെയിൽവേയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏതൊരാൾക്കും യാത്രാ ചിലവ് താങ്ങാവുന്നതാണ് അതിൽ റെയിൽവേ യാത്ര നമ്മുടേ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ബന്ധിപ്പിക്കാവുന്ന ബന്ധിച്ചിരിക്കുന്ന തീവണ്ടികൾ തന്നെയുണ്ട് സംസ്ഥാനത്തിൻ്റെ റോഡ് ഗതാഗതം ചില നഗര പ്രദേശങ്ങളിൽ വളരേ നല്ലതാണ് എന്നാൽ ഗ്രാമ പ്രദേശങ്ങളിലേക്ക് ഗതാഗത ഗുണ നിലവാരം അത്ര മെച്ചമുള്ളതല്ല സമസ്ഥാനത്തിൻ്റെ ഗതാഗതം ടൗൺ ടു ടൗൺ അതാത് നഗരങ്ങളിൽ നിന്നു നഗരങ്ങളീലേക്കു വളരെയധികം ഗുണനിലവാരം ഉള്ളതാണ് എന്നാൽ ഗ്രാമ പ്രദേശികളിലേക്ക് വരുമ്പോൾ പല ഗ്രാമങ്ങളെയും കൂട്ടി യോജിപ്പിക്കുവാൻ കഴിയുന്നില്ല എന്നാൽ ഇന്ത്യൻ റെയിൽവേ നമുക്ക് കശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാ നഗരങ്ങളെയും പട്ടണങ്ങളെയും ബന്ധിപ്പിച്ചാണ് പോകുന്നത് തന്നെയുമല്ല ഇന്ത്യൻ റെയിൽവേയുടെ യാത്രാച്ചിലവു നമ്മക്കെല്ലാവർക്കും താങ്ങാൻ കഴിയുന്നൊരു ചിലവുകൂടിയാണെന്നു പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഉയർന്ന ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ഏ സീ കമ്പാർട്ടുമെൻ്റുകളും സ്ലീപ്പർ കമ്പാർട്ടുകളും വേറേ രീതിയിൽ തന്നെ റയിൽ വേ അലങ്കരിച്ചിരിക്കുന്നു എന്നാൽ ദരിദ്രന്മാർക്കു വേണ്ടി യാത്ര ചെയ്യാൻ ഗരീബ് രഥ് പോലെയുള്ള ട്രെയിനുകളും ഇന്നു സർവ്വ സാധാരണമാണ് അതിനാൽ ഇന്ത്യൻ റെയിൽവേയിൽ ഗ്രാമ പട്ടണ വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവർക്കും യാത്രാച്ചിലവ് താങ്ങാവുന്നതാണ് അതിനാൽ നമുക്കു നഗരം ഗ്രാമങ്ങളൊക്കെ കണ്ടു രസിക്കുവാനും കഴിയുന്നു